കേരളത്തിലെ വിദ്യാഭ്യാസം നല്ല രീതിയിലാണ് മുന്നോട്ട് പോവണത് പല തരത്തിലും പുതിയ പുതിയ പുതിയ പുതിയ സംവിധാനങ്ങൾ വിദ്യാഭ്യാസത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകതന്നെയാണ് അതായത് നാല് വർഷത്തെ അത് ഡിഗ്രി കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെ പുതിയ ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങളിലും നമ്മളെ കേരളം എന്താ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ച്ച വയ്ക്കുന്നത് പ്രതിരോധ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിലായിരുന്നാലും മരുന്നിന്റെ കാര്യത്തിലായിരുന്നാലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡോക്ടർമ്മാരെ എപ്പോഴും ഡോക്ടർമ്മാരുടെ സേവനങ്ങളും ലഭ്യമാണ് നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സമ്പത് വ്യവസ്ഥ കേരളത്തിലെ സമ്പത് വ്യവസ്ഥ കുറച്ച് ഇനിയും കുറച്ചുകൂടെ മെച്ചം ആവാനുണ്ട് കാരണം കുറച്ചുംകൂടെ നമ്മുടെ സമ്പത് കുറച്ചുകൂടെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഈ നമ്മുടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുളളൂ സർക്കാരിൻ്റെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നയിടത്ത് ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുകയും വലിയ വാഹനങ്ങളിലെ എല്ലായിടത്തും ഒരുപോലെത്തന്നെ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതെ ചിലവുകൾ കുറച്ചുകൂടെ ചെറിയ ചുരുക്കി ചെയ്യാവുന്ന തരത്തിലുള്ള എങ്ങനെയെല്ലാം ചുരുക്കാം പറ്റുമെന്ന് നോക്ക് കുറച്ചുകൂടെ ചിലവുകൾ നോക്കിക്കണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സമ്പത്ത് വ്യവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുക തന്നെ ചെയ്യും കേരളത്തിൻ്റെ സമ്പത് വ്യവസ്ഥ മെച്ചപ്പെടുക തന്നെ ചെയ്യും ആഗോള ആരോഗ്യത്തിൻ്റെ ലെവല് വെച്ച് നോക്കുമ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ രംഗം കുറേ മെച്ചമാണ് എന്താ കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെയധികം വളരെ കാലാവസ്ഥ വ്യതിയാനം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇതിൽ ശരിക്കും കഴിഞ്ഞ ഒരു ആ അഞ്ച് വർഷത്തിനുള്ളിൽത്തന്നെ മഴ മൂലം നമ്മളൊരുപാട് പ്രതിസന്ധികൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാട് അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം നമുക്ക് അനുദിനം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുദിനം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൺസൂണൊക്കെ വളരെ വ്യത്യസ്തമായി നമുക്ക് നിർവ്വചിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രതിരോധിക്കേണ്ടതാണ് പലതരത്തിലും ഇപ്പം നമുക്ക് നമ്മൾക്ക് വളരെ സുരക്ഷിതമായൊരു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ അതിന് നിന്നെല്ലാം വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദം നമ്മളുടെ കേരളത്തിൽ തീർത്തും ഇല്ല എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിൽ പലപ്പോഴും നമ്മൾ ആ നമുക്ക് പലയിടത്തുനിന്നായിട്ട് തീവ്രവാദമോ അല്ലെങ്കിൽ അത് അതെ അതുപോലെ തന്നെ അതുമായിട്ട് സാമ്യമുള്ളതോ ആയിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ഇവിടെ അടുത്തിടെ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്